ഹലോ ക്യാബ് ഏജൻസി അല്ലെ ഞങ്ങൾക്ക് അതായത് ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് യാത്ര പോകാൻ വേണ്ടിയായിരുന്നു നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പേരുണ്ട് അപ്പം സെവൻ സീറ്റർ വണ്ടിയും പറ്റില്ല അപ്പോൾ ഒരു വേറെ ഒരു വലിയ വണ്ടി വേണം ട്രാവലർ പോലത്തെ ഒരു വണ്ടി വേണം അപ്പോൾ നിങ്ങളെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഡ്രൈവറെ നമുക്ക് ആവശ്യമില്ല വണ്ടി മാത്രം മതി വണ്ടി മാത്രമായിട്ടാണ് നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് അതായത് ഡ്രൈവിംഗിന് ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ആ അപ്പോൾ നമുക്ക് ഈ കിലോ മീറ്ററിന് എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ആ ഞങ്ങൾ പോകുന്നത് ഇവിടെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ആ അതെ അപ്പോൾ ഞങ്ങൾ ഡേറ്റ് കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾക്ക് പോകേണ്ടത് സെപ്റ്റംബർ പതിനെട്ടിനാണ് അപ്പം പിന്നെ പതിനെട്ടിനാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് ഉറപ്പില്ല എല്ലാവരും ജോലി കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് നമ്മൾ എന്തായാലും പതിനെട്ട് ഒരു പതിനേഴാം തിയതി നിങ്ങളെ വിളിച്ച് കൺഫോം ചെയ്യാം നിങ്ങൾ അപ്പോഴത്തേക്കൊന്ന് വണ്ടി റെഡിയാക്കി വെക്കണേ ആ ഓക്കേ ഓക്കേ താങ്ക് യൂ